മെയിൻ ആയിട്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഓടിക്കേണ്ടത് കാരണം നമുക്കിപ്പോൾ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നുമല്ലല്ലോ ഫോർ വീലർ പോലെ എന്തായാലും ടൂ വീലറിന് ഇല്ല ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ ടൂ വീലറു ഓടിക്കുമ്പോൾ നമ്മൾ അത്ര സുരക്ഷിതരുമല്ല അപ്പോൾ എന്ത് ചെയുക മെയിൻ ആയിട്ട് ഹെൽമെറ്റ് ഇടുക പിന്നെ ചിലവരൊക്കെ കയ്യിലൊക്കെ ഗ്ലൗസ് പോലെത്തെ അതിൽ കുറച്ച് കട്ടിയുള്ള ഗ്ലൗസ് മുട്ടിൽ പിന്നെ കട്ടിയുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും അങ്ങനെ അങ്ങനെ ഇടുന്നവർ വളരെ കുറവാണ് പക്ഷെ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കും കാലിനും മുട്ടിനാണെങ്കിലും പിന്നെ തലയ്ക്ക് ആണെങ്കിലും ഒന്നും പറ്റില്ല അപ്പം ഹെൽമെ മാക്സിമം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോവുക പിന്നെ പിന്നെയെന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടത് സൈഡ് തന്നെ പോവുക പിന്നെ മാക്സിമം അധികം ഓവർടേക്ക് ചെയ്യാണ്ട് ഇരിക്കുക പിന്നെ വളവിലൊക്കെ നമ്മൾ നല്ലോണം ഹോൺ അടിച്ച് പോവുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം പിന്ന യാത്ര ചെയ്യുമ്പം അതായത് നമ്മൾ വണ്ടീൻ്റെ ബുക്കും പേപ്പറും എല്ലാം എടുക്കണം പിന്നെ ആദ്യം നമ്മുടെ ലൈസൻസ് കയ്യിൽ ഉണ്ടാവണം അങ്ങനെ ഉള്ളതൊക്കെ ആദ്യം ശ്രദ്ധിക്കണം അതൊക്കെയാണ് ഉള്ളത്